എനിക്ക് പൊതുവേ എല്ലാ സിനിമ നടന്മാരെയും ഇഷ്ടമാണ് കാരണം അവരുടെ ആക്ടിംഗ് ആണ് ആക്ടിങ്ന്ന് വെച്ചാല് അവരാ സിനിമയില് അഭിനയിക്കുക പറഞ്ഞ പറഞ്ഞാൽ അവരതിലൂടെ ജീവിക്കുകയാണ് അവരാ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ഇപ്പോ ഒരു കഥാപാത്രം അവരെടുത്ത് ചെയ്യുവാണെങ്കിൽ ആ കഥാപാത്രവുമായിട്ട് അവര് അറ്റെ ടൈം മാറുവാണ് നമുക്ക് അവരഭിനയിക്കണെമെന്ന് അങ്ങനല്ല തോന്നാറ് അത് മാറാണ് അതിപ്പോൾ ദിലീപാണെങ്കിൽ അതേപോലെ മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടി ആണെങ്കിലും ഇവരൊക്കെ ഇഷ്ട കഥാപാത്രങ്ങളാണ് സിനിമയിലെ ഇവരെ അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഈ താരങ്ങളെയാണ് കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കഥ സിനിമാതാരങ്ങൾ എന്ന് പറയണത് അവരുടെ അഭിനയം ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാം ഒന്നിനൊന്നു മെച്ചപ്പെട്ട അഭിനയമാണ് നമുക്കത് മനസ്സിലാവും നമുക്ക് അതേപോലെ അവര് അഭിനയിക്കുന്ന അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റിയ കാരക്ടേഴ്സ് മാത്രമാണ് അവരെടുക്കാറുള്ളത് എല്ലാ ക്യാരക്ടറും വലിച്ചുവാരി അഭിനയിക്കുക അങ്ങനെയല്ല പ്രൊഫഷണൽ ആയിട്ട് ആ ഒരു ഇത് നമ്മളെത്തിക്കും നമുക്കാ സിനിമ സിനിമകണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടും ഒരു ഗുഡ് ഫീല് അതന്നെയാണ് ഇവരെ മറ്റുള്ള സിനിമ താരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്